ഹിന്ദിയും മലയാളവും താരതമ്യം പറഞ്ഞാൽ ഇന്ത്യൻ മലയാളവും ഇന്ത്യയിൽ ഒരു ഭാഷയാണ് ഹിന്ദി ഔദ്യോഗിക ഭാഷയാണ് ദേശീയ ഭാഷയാണ് മലയാളം കേരളത്തിലുള്ളവർ മാത്രം സംസാരിക്കുന്ന ഒന്നാണ് അതുപോലെ മലയാളം പറയാൻ നല്ല കുറച്ചു കഷ്ടപ്പടാണ് ഹിന്ദി അതുപോലെ അല്ല അത്യാവശ്യം എളുപ്പമാണ് മലയാളം അക്ഷരമാലകൾ പഠിച്ചെടുക്കാൻ കുറച്ചു കഷ്ടപ്പാടാണ് അത് ഉച്ചരിക്കാനും മറ്റുള്ളവർക്ക് പഠിച്ചെടുക്കാനും നല്ലപാടാണ് അതുപോലെ ഹിന്ദി നമുക്ക് നന്നായിട്ട് എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ് പക്ഷെ മലയാളം അങ്ങനെ അല്ല അത്യാവശ്യം നല്ല കഷ്ടപ്പാടും വേണം അതേപോലെ എല്ലാ കഴിവും വേണം ഇതൊക്കെ വേണം കേരളത്തിലുള്ളവർക്ക് അധികം ഹിന്ദിയൊന്നും അറിയില്ല അവർക്ക് മലയാളം തന്നെയാണ് കൂടുതലും അറിയാവുന്നത് അതാണ് അവർ സംസാരിക്കുക പക്ഷെ ഹിന്ദി നമ്മൾ പഠിക്കണമെന്നാണ് പക്ഷെ കേരളത്തിൽ ഉള്ളവർക്ക് മലയാളം മാത്രമേ അറിയൂള്ളൂ ഹിന്ദി മറിയുന്നവരുണ്ട് പക്ഷേ അത് കുറേ പാടാണ് പഠിക്കാൻ ഹിന്ദിയാണ് നമ്മളെ ദേശീയ ഭാഷ അതാണ് നമ്മുടെ ദേശീയ ഭാഷ അത് പഠിക്കാൻ കുറച്ചു കഷ്ടപ്പാടാണ് ഇതൊക്കെയാണ് ഇതുമായി താരതമ്യം ചെയ്യുന്നത് മലയാളം നല്ല കഷ്ടപ്പാട്